കുറച്ച് വർഷം മുമ്പുള്ള പഴയ മൊബൈലുകളെന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജയക്കാനും ജസ് ഒന്ന് കോൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളാരുന്നു ഇതാ ഇപ്പോൾ നിലവിലുള്ള സ്മാർട്ട് ഫോണുകൾന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഉപയോഗപ്രദമായ സ്മാർട്ട് ഫോണുകളാണ് നല്ല നെറ്റ് സർവീസ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്കതിലൂടെ തന്നെ നമുക്കെല്ലാ കാര്യങ്ങളറിയാൻ പറ്റും മീഡിയ പരമായിട്ടും അല്ലാതെ നമുക്കെന്തെങ്കിലാവശ്യങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതീന്ന് തപ്പിയെടുക്കുന്നതിൽ കൂടിയും സ്മാർട്ട് ഫോണുകളുപകാരപ്രദമാണ് നെറ്റ്വർക്ക് കണക്ഷൻ്റെ പ്രവർത്തനം നല്ലൊരെന്നെ ഈ പണ്ടത്തെ അപേക്ഷിച്ചിപ്പോഴത്തെ നെറ്റ്വർക്ക് കണക്ഷൻന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉപയോഗപ്രദമായ രീതീലും സ്പീഡിലുവാണ് നെറ്റ് വർക്ക് ചെയ്യുന്നത് എയർടെൽൻ്റെ സിമ്മുപയോഗിക്കുന്നതിനും റീചാർജ് ചെയ്യുന്നതിനും ഡെറ്റ പാക്കേജുകൾ നമ്മളിൽ പ്രതിമാസം ഉപയോഗിക്കാവുന്നവരിന്ന് ഇരുന്നൂറ് രൂപയിൽ കൂടുതൽ നമുക്ക് ഒരു ഡാറ്റാ പാക്കേജിന് പൈസയാവുന്നില്ല